ഇപ്പം സാധാരണ ഗതിക്ക് എങ്ങനെ പോയാലും ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വൈദ്യുതി കിട്ടും മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നേരെ തിരിയും വേനൽക്കാലം വലിയ മുടക്കമൊന്നുമില്ല വൈദ്യുതി മിക്കവാറും സമയത്തൊക്കെ ഉണ്ട് മഴയും കാറ്റും വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാവും ഒരു പന്ത്രണ്ട് മണിക്കൂറോ പത്ത് മണിക്കൂറൊ ഒക്കെ ശരാശരി വൈദ്യുതി ഉണ്ടാവുകയുളളു അപ്പം പിന്നെ എന്താണ് വച്ചാൽ വൈദ്യുതി പോയിക്കഴിയുമ്പം മഴയും കാറ്റും ഉള്ളപ്പം വൈദ്യതി വെളിച്ചം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം അത് നമുക്ക് ബാധിക്കും പിന്നെ ഈ കാലത്തെ എല്ലാവർക്കും സോളാർ ഇൻവെർട്ടർ ഒക്കെ ഉള്ളത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിനെ വലിയ രീതിയിൽ അത് ബാധിക്കാറില്ല വൈദ്യുതി മുടങ്ങിപ്പോയാലും അതിന് പ്രൊവിഷ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ളതുകൊണ്ട് അതല്ല എങ്കിൽ വൈദ്യുതി മുടക്കുന്നത് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് വൈദ്യുതി മുടക്കിയാൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഫാൻ ഇല്ല എന്നുള്ളതാണ് ഫാനും എ സിയുമില്ലാതെ എവിടെ ആണെങ്കിലും കിടക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ചു ഫാനാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ജനകീയമായിട്ട് എല്ലാ ആളുകൾക്കും ഏസിയിലാണ് കൂടുതലും ഉള്ളത് അപ്പം ഫാനില്ലാതെ കിടക്കുക എന്നു പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ വേനലിൽ വൈദ്യുതി പോയാൽ വേനലിൽ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫാൻ ഇല്ല എന്നുള്ളതായിരിക്കും

വൈഫൈ കിട്ടാറില്ല എന്നൊക്കെ ഉള്ളതാണ് അത് വലിയ തോതിൽ ആളുകളെ ബാധിക്കുന്നതാണ് ഇപ്പം ഈ പറഞ്ഞ ടിവിയും ഫോൺ ഒന്നുമില്ലാത ജീവിക്കുക എന്നുള്ളത് ആളുകൾക്ക് അസാധ്യമാണ് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസം വൈഫൈ ഇല്ല ഇൻ്റർനെറ്റ് ഇല്ല ടീവി കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് ആളുകൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആക്കും ആളുകൾ ഒരു വേള ഡിപ്രസ്ഡ് ആയിപ്പോകും പ്രത്യേകിച്ചു കുട്ടികൾ അവരുടെ ജനറേഷൻ എങ്ങനെയാണ് അപ്പം അതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ വിഷയം പിന്നെ മഴക്കാലം ആവുമ്പം ഈ പറഞ്ഞത് പോലെ വെളിച്ചം ഇല്ല എന്നുള്ളത് ലൈഫിൽ നമുക്ക് നമ്മൾ മൊത്തത്തിൽ ഡിപ്രസ്ഡ് ആവുമല്ലോ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഇതിനെ പറ്റിയിട്ട് പൊതുവിൽ തോന്നിയിട്ടുള്ളത് പിന്നെ അതല്ലാതെ വലിയ ഒത്തിരി ഒത്തിരി അങ്ങനെ വലിയ മഴ കാറ്റ് ഉരുൾ പൊട്ടൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒത്തിരി മണിക്കൂറുകളിലേക്ക് വൈദ്യുതി പോവും അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കും വീട്ടിൽ വെളിച്ചം വെട്ടമില്ല നമുക്ക് മോട്ടൃ അടിക്കാൻ കരണ്ട് ഇല്ല സ്വാഭാവികായിട്ട് ഇപ്പം വെള്ളം നമുക്ക് പൈപ്പിൽ കിട്ടിയില്ല ഈ കാലം നമ്മൾ അങ്ങനെ ശീലിച്ചിട്ട് വെള്ളം പൈപ്പിൽ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പഴയകാലം പോലെ നമുക്ക് വെള്ളം കോരി കൊണ്ടു വന്നു കഴുകുക അല്ലെങ്കിൽ വേറെ എവിടെ എങ്കിലും പുഴയിൽ കൊണ്ടു പോയി തുണി കഴുകുക അത് പ്രൊവിഷൻസും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ഒട്ടും ഈസി ആയിരിക്കത്തില്ല നമ്മൾ അതിനെ ശീലിക്കാത്തത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും പിന്നെ ടീവി ഇല്ല മൂന്നാമത്തെ വിഷയമാണ് ഇൻ്റർനെറ്റ് ഇല്ല അതിലും വലിയ പ്രശ്നമാണ് ഇപ്പം നമ്മൾ ഈവൻ ഒരു ഹോസ്പിറ്റൽ കേസ്സ് ചെന്നാൽ പോലും വൈദ്യുതി ഇല്ല എന്നു പറയുന്നത് അവിടെ സീരിയസായി ഇഷ്യൂസ് ഉണ്ടാക്കും ഇപ്പം ഹോസ്പിറ്റൽസൊക്കെ ആണെങ്കിൽ ഇൻവെർട്ടർ ഒക്കെ ഉണ്ട് പ്രൊവിഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് ദിവസങ്ങ ളിലേക്ക് വൈദ്യുതി മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും അത്തരം പ്രശ്നങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അത് വലിയ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് അപ്പം മാത്രമാണ് അങ്ങനെ അതിനോട് അനുബന്ധിച്ചു ഓരോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പം മാത്രമാണ് അങ്ങനെ വൈദ്യതി മുടക്കം അനുഭവപ്പെട്ടിട്ടുള്ളു അന്ന് അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഫീൽ ചെയ്തു എന്നിരുന്നാൽ കൂടി അതിന് ഒരു അന്ന് വേറെ പാകത്തിനു സംവിധാനമുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വലിയ പരിധി വരെ അങ്ങനെ നമുക്ക് അത് സോൾവ്വ് ചെയ്യാനായിട്ട് പറ്റി എന്നാൽ പോലും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ ഒട്ടും സുഖകരമായിരിക്കില്ല നമുക്ക് അതിന് എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലെങ്കിൽ ഇൻവെർട്ടറോ സോളർ പവറോ പോലെ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ലാതെ വൈദ്യുതിയും വൈദ്യുതി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന യന്ത്രങ്ങളും ഇല്ലാത്ത ജീവിതം എന്നു പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേ അറ്റം നമുക്ക് ഈ കാലം ചിന്തിക്കാൻ പറ്റാത്തതാണ് അത് അസാധ്യമാണ് ഓൾമോസ്റ്റ് മിക്സി ഇല്ല വാഷിങ് മെഷീൻ ഇല്ല വെള്ളമില്ല എന്നൊക്കെ ഉള്ളത് ഡേയ്ലി ലൈഫിൽ നമക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് വൈദ്യുതി ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കുക എന്നു പറയുന്നത് തന്നെ സാധിക്കില്ല